ഹലോ ആരായിരുന്നൂ ആ അതെ അല്ലോ അതെ അല്ലോ ആ മാഡം മനസ്സിലായി മനസ്സിലായി മറ്റേ അബുദാബിലുണ്ടായിരുന്ന ഇപ്പം നാട്ടിലേക്ക് വരാന് വേണ്ടിയിട്ടല്ലേ അവധിക്ക് ആ ആ ഉറപ്പായിട്ടും സഹായിക്കും മാഡത്തിന് എന്തെങ്കിലുമൊക്കെ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമെന്നാണ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വേ സെ മാഡത്തിന് എന്തൊക്കെ പ്രിഫറന്സുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് അതിന് അനുസരിച്ച് ഞാൻ മറുപടി തരുന്നതായിരിക്കും ഇല്ല ഞങ്ങളുടെ പാക്കേജിൽ തന്നെ മാഡത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി അറേഞ്ചെ് ചെയ്തു തരാം നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വന്നാൽ മതി നമ്മൾ അതിന് അനുസരിച്ച് വണ്ടി വിട്ട് നിങ്ങളെ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും നിങ്ങൾ എന്നിട്ട് പല സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് ഒരു ലിസ്റ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഞാൻ ലിസ്റ്റ് മാഡത്തിനോട് പറയാം ആ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ മാഡത്തിനെ കൊണ്ട് കാണിക്കുന്നതാണ് മാഡത്തിന് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ നമ്മൾക്ക് മാഡം പറയുന്നത് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ സ്ഥലമാണോ വേണ്ടത് അതിന് അനുസരിച്ച് നമുക്ക് പാക്കേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതിന് അപ്പോൾ അത്രയും റേറ്റ് ആവും അത് പാക്കേജിന് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തരാനും പറ്റും ആ അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ വേണം എന്ന് ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഹൗസ്ബോട്ട് വേണോ ഹൗസ്ബോട്ടിൽ കയറാന് അങ്ങനെ ആ അപ്പോൾ ഒരു ഡേ നമുക്ക് ഹൗസ്ബോട്ടിൽ സമയം ചെലവഴിക്കുന്ന രീതിയിൽ അതിൽ തന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കഥകളി അതേപോലെ തന്നെ മോഹിനിയാട്ടം പിന്നെ ഭരതനാട്യം ഈ മൂന്ന് കലാരൂപങ്ങളും കാണുന്ന രീതിയിൽ ചെയ്താൽ മതിയോ ആ അപ്പം ഫുഡ് നിങ്ങൾക്ക് പ്രിഫറന്സ് നോണ് വെജ്ജ് ആണോ അതോ വെജ്ജ് ഫുഡ് വേണോ നോണ് വെജ്ജ് ഫുഡ് അപ്പം അതിലെല്ലാം കൂടും ഞണ്ടും കക്കയും അതുപോലെയുള്ള മീനും ചെമ്മീനും ഒക്കെ വരുന്ന ഒരു വലിയ ഒരു കോമ്പോ ആയിരിക്കും കേട്ടോ നിങ്ങൾ എത്ര ആള്ക്കാരുണ്ടാവും രണ്ട് പിള്ളാർ അഞ്ച് പേര് ആ അപ്പം അഞ്ച് പേര്ക്കുള്ള ഫുഡും അതേപോലെ തന്നെ സ്റ്റേ നിങ്ങൾ ഇപ്പം ഇവിടെ എത്ര ദിവസം നിൽക്കുന്ന രീതിയിലായിരിക്കും സ്റ്റേ രണ്ട് ആഴ്ച്ച അപ്പം രണ്ട് ആഴ്ച്ചത്തേക്കുള്ള വണ്ടി സൗകര്യങ്ങളും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരാം ആ യാത്രാസൗകര്യങ്ങളും നമ്മൾ ചെയ്ത് തരും അതുപോലെ തന്നെ എവിടെയാണോ താമസിക്കാനുള്ളത് അതും നമ്മൾ നമ്മുടെ പാക്കേജിന് അകത്ത് തന്നെ ഉള്ളതാണ് അപ്പം ഏകദേശം ഈ പാക്കേജിന് എല്ലാം കൂടെ ഒരു എട്ടായിരം രൂപ വരും കേട്ടോ ഈ പറഞ്ഞ ആ കഥകളി അതു പോലെ തന്നെ മോഹിനിയാട്ടം ഭരതനാട്യം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചാക്യാര്കൂത്തോ അത് അത് പോലെ തന്നെ ഓട്ടം തുള്ളലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കില് അത് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞ രണ്ടു മൂന്ന് പള്ളികളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ പള്ളികളില് നിന്ന് വിസിറ്റ് ചെയ്യുന്ന ആ ഈ മൂന്ന് പള്ളികളിലും നമുക്ക് അ തിന് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് മാഡത്തിനേയും ഫാമിലിയേയും നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുപോയി ചെയ്യുന്നതാണ് അപ്പം മാഡം എന്ന് നെടുമ്പാശ്ശേരിയിൽ വരും ആ അപ്പം ഞങ്ങൾ കുറച്ച് മാഡത്തിനു വേണ്ടിയിട്ട് ആ അപ്പോൾ അഞ്ചു മണിയാവുമ്പോൾ ഞങ്ങൾ വണ്ടിയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ ഓക്കേ മാഡം താങ്ക് യു